വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും രുചികരമാക്കാൻ ഏറ്റവും നല്ലത് നമ്മളുടെ കൂടുതൽ കൃത്രിമമായ രസക്കൂട്ടുകൾ ഉപയോഗിക്കാതെ നമ്മളുടെ വീട്ടിലന്നെ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഓരോരോ പൊടികളും കാര്യങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ അതിന് ഉപരിയായിട്ട് നമ്മൾ അതിനകത്ത് ചേർക്കുന്ന നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഓയിൽ എണ്ണ അതുകുറച്ച് നാച്ചുറൽ ആവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ രസക്കൂട്ടുകൾ ഇടുമ്പോൾ നമ്മൾ പുറമേന്ന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇട്ടാൽ കൂടുതലായിട്ട് ചില സമയത്ത് നമുക്ക് അത് നല്ല രുചിയായിട്ട് നാവിന് തോന്നിയിരിക്കാം എങ്കിലും അത് ചിലപ്പോൾ നമ്മുടെ വയറിന് അത്ര നന്നായിരിക്കണമെന്നില്ല അതുകൊണ്ട് കൂടുതലും നമ്മൾ നമ്മളുടെ നാച്ചുറൽ വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്